ആ അതെ ലോൺ എടുക്കാൻ ആ ഓക്കേ ഓക്കേ അപ്പോൾ നിങ്ങൾക്കെന്തെങ്കിലും ഈടായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്ഥലമുണ്ട് എത്ര ഏക്കർ സ്ഥലമുണ്ട് പതിനാറ് പതിനാറ് ഏക്കർ അല്ലേ അപ്പോൾ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രൈസ് എത്രയാണ് മൂന്ന് ലക്ഷം രൂപയാണ് അല്ലേ അപ്പോൾ ഗോൾഡ് എത്രയുണ്ട് ഏകദേശം എത്രയുണ്ടാവും പതിനഞ്ച് പവനുണ്ടാവും അല്ലേ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടും പക്ഷേ ഗോൾഡ് ലോൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പലിശ കൂടുതലായിരിക്കും ആ അത് വേണമെങ്കിൽ ഇല്ല മാസാമാസം അടയ്ക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്കിഷ്ടമുള്ളത് പോലെ അടച്ച് തീർക്കാൻ പറ്റും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ പലിശ അതിന് കൂടുതലായിരിക്കും കാരണം പന്ത്രണ്ട് ശതമാനമാണ് പലിശ വരിക ആ അതെ അപ്പോൾ നിങ്ങൾ കുറഞ്ഞ പലിശ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് നമ്മുടെ സ്ഥലം വയ്ക്കുക സ്ഥലം ഈടായിട്ട് വയ്ക്കുക അപ്പോൾ നാല് ശതമാനമേ നിങ്ങൾക്ക് പലിശ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വിദ്യാഭ്യാസ ലോൺ ആയിട്ട് തന്നെ നമുക്കെടുക്കാൻ വേണ്ടി പറ്റും ഇല്ലില്ല അത് കിട്ടില്ല എന്തെങ്കിലും ഈട് വയ്ക്കണം എന്നാലേ നമുക്ക് വിദ്യാഭ്യാസ ലോൺ ആയിട്ട് കിട്ടുള്ളൂ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് നികുതിയൊക്കെ അടയ്ക്കുന്നതല്ലെ അപ്പോൾ നികുതീൻ്റെ നികുതി ചീട്ടിൻ്റെ ഒരു കോപ്പി എടുക്കുക ആ അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ കിട്ടുന്നത് അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്

വേണ്ട പിന്നെ ഇവിടെ ഒരു അക്കൌണ്ട് എടുക്കണം അത്രേ ഉള്ളൂ വേറൊന്നും വേണ്ട ഉണ്ടല്ലേ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഈ ഗോൾഡും എടുക്കുക ഈ നികുതി ചീട്ടിൻ്റെ ഒരു കോപ്പിയും എടുത്തിട്ട് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതാണ്

തിങ്കളാഴ്ച പോരൂ ഒരു പ്രൊസീജർ മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടും നിങ്ങൾ തിങ്കളാഴ്ച കയ്യിൽ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ആണെങ്കിൽ അക്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതേപോലെ ചെയ്തുതരും ഓക്കേ എന്നാൽ